ആദ്യം അവർക്കായ ആവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങള് നൽകും പെരുമാറ്റ ചട്ടം ലഘിച്ചാല് ആദ്യ പടിയെന്നുള്ള നിലയ്ക്ക് അവരെ നല്ലൊരു രീതിയില് ഉപദേശിക്കും ഉപദേശിച്ചിട്ട് കുറച്ച് സമയം പിന്നെ അവരെ നിരീക്ഷിക്കുകയും ചെയ്യും ആ നിരീക്ഷണത്തിലൂടെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കില് തുടർന്നും പിന്നെ കായികയിനത്തിൽ തുടര്ന്ന് പോകാനും പിന്നേ ഗീല് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും നൽകും തുടർന്നും ഇത്തരം തെറ്റുകുറ്റങ്ങള് ആവർത്തിക്കുകയാണെങ്കില് കുറച്ചുകാലത്തേക്ക് മാറ്റിനിർത്താറാണ് പതിവ് അവര് എത്ര കാലം സസ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കില് ഒരു രണ്ടു മൂന്നു മാസം അവരെ മാറ്റിനിർത്തി മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നു നിരീക്ഷിക്കും അങ്ങനെ നിരീക്ഷിക്കു ചില ആളുകള് മാറി പൂർണമായും മാനസികമായിട്ടും കായികപരമായിട്ടൊക്കെ ഫിറ്റ്നെസ്സ് വീണ്ടെടുത്ത് തിരിച്ചുവരാറാണ് പതിവ് ആദ്യ ഘട്ടം നിർദ്ദേശം നൽകുന്നതിലൂടെ തന്നെ അത്യാവശ്യം നല്ല രീതിയില് എല്ലാവരിലും മാറ്റങ്ങള് ഇങ്ങനെ പെരുമാറ്റ ചട്ടം ലംഘിക്കുന്ന ആളുകള് മാറ്റങ്ങള് വരാറുണ്ട് തെറ്റു മനസ്സിലാക്കി തിരുത്തി വരുന്നതിലൂടെ അവര് മറ്റുള്ളവർക്ക് മാതൃക ആകുന്ന രീതിയിലും പിന്നേ തുടർന്ന് കാര്യങ്ങൾ നടത്തുന്നൊരു നിലവാരത്തോട്ട് കാര്യങ്ങള് എത്തലുണ്ട് നിലവില് അത്യാവശ്യം ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങള് ഇതാണുള്ളത് അതിൽ തന്നെ അത്യാവശ്യം മാറ്റങ്ങളെല്ലാം കായിക പ്രേമികൾക്കും കളിക്കുന്നവർക്കും ഉണ്ടാകാറുണ്ട്